നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് താങ്ങാനാകാത്ത ഫീസുകളൊക്കെ അടിച്ചേല്പിച്ച് കൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലകളൊക്കെ പോകുന്നത് ഒരു കച്ചവടത്തിൻ്റെ മേഖലയിലേക്കാണ് അതുപോലുള്ള പിള്ളേർ തുടർന്നുള്ള പഠനം വരുമ്പോഴത്തേനും താങ്ങാനോ സാധാരണപ്പെട്ട പിള്ളേർക്ക് ആണെങ്കിൽ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് സ്കൂള്ലൊക്കെ താങ്ങാനാകാത്ത ഫീസുകൾ കടന്നുവരുന്നുണ്ട് അതിനെല്ലാം അവരുടെ ഫീസുകളൊക്കെ വളരെ രാവിലെ എഴുന്നേൽക്കുക സമയമാണെങ്കിൽ കറക്ട് സമയത്ത് വണ്ടി വരുന്നു അതിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ല എല്ലാം സമയത്തുതന്നെ പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല സാധിക്കുമെന്നുപറഞ്ഞാൽ അതുപോലെ കഷ്ടപ്പാടും പ്രയാസങ്ങളുമൊക്കെ നിറഞ്ഞവരാണ് ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം എന്ന് അതുപോലെത്തന്നെ പണ്ട് പത്താം ക്ളാസ്സ് വരെ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അവർക്കായി നമുക്ക് മലയാളം എന്ന് പറയുന്ന കേരളീയ കുട്ടികൾ മലയാളത്തിന് ഇവിടുത്തെ കുട്ടികൾ പത്താം ക്ളാസ്സ് എ പ്ലസ് മേടിച്ച് മുഴുവൻ പഠിച്ച് ജയിച്ചു എന്നുപറഞ്ഞാൽപോലും കുട്ടികൾക്ക് നല്ലപോലെ വായിക്കാനോ മലയാളം വായിക്കുവാനോ എഴുതുവാനോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്കുള്ള അവർക്ക് എടുത്തുകൊണ്ട് വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ പ്രയാസങ്ങളൊക്കെയാ കുഞ്ഞുങ്ങൾക്ക് വായിക്കാനും മലയാളമൊക്കെ ഒന്ന് വായിക്കാ അത് മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴ് മലയാളത്തിന് കൂടുതലായി ഊന്നൽ കൊടുക്കുക നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് കൂടുതൽ അറിവിലേക്ക് അവിടെ കുട്ടികളെ വളർത്തുവാനായിട്ടൊക്കെ പഠിപ്പിക്കുക എന്നുള്ള മേഖല ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് ഓൾ പാസ് പിള്ളേർക്ക് ഫ്രീ പാസ് പോലെയാണ് ഇപ്പോൾ കാണുന്നത് എല്ലാവരും ജയിക്കുന്നുണ്ട് പക്ഷെയെങ്കിൽ കുട്ടികൾക്ക് മലയാളത്തിൽ ഇപ്പോഴും നമ്മുടെയൊരു വിദ്യാഭ്യാസം പത്താം ക്ളാസ് വരെയും മുഴുവൻ എ പ്ലസ് വേടിച്ച കുട്ടികൾക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വളർത്തുമൃഗങ്ങളുടെ പേരുകൾ ചോദിച്ചാൽ അപ്പോൾ അത് എന്താണെന്നുപോലും അറിയത്തില്ലാത്ത ഒരു പ്രകൃതിമലെ പ്രകൃതിയുമായിട്ടുളള ബന്ധപ്പെട്ട ഒരു അല്ലെങ്കിൽ നമ്മുടെ സഹപാഠി പണ്ട് ഉണ്ടായിരുന്നതുപോലെ മനുഷ്യരുമായിട്ടുള്ള ഒരു സഹകരണമോ അങ്ങനെയുള്ളതൊന്നും ഇല്ല ഇപ്പം എല്ലാവരും കുട്ടികൾ ആണെങ്കിൽ മൊബൈലുമായിട്ട് മൊബൈൽ ആധുനികമായിട്ടായിരിക്കും മൊബൈലുമായിട്ടുള്ള സംഭാഷണം കാര്യങ്ങളുമൊക്കെയായിട്ട് ആണെങ്കിൽ കുഞ്ഞുങ്ങൾ പോകുന്നത്

പിന്നെ അതുമായിട്ട് ബന്ധപെട്ട് പിള്ളേർക്ക് മറ്റുള്ള ഭൗതികമായിട്ടുള്ള ഒരു ബന്ധം കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നില്ല അതുപോലെത്തന്നെ കോളേജുകൾ സ്ക്കോളേജുകളൊക്കെയാണെങ്കിൽ അമിതമായിട്ട് ഫീസുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതൊരു വിദ്യാഭ്യാസ കച്ചവട മേഖലയിലേക്ക് ബുദ്ധി വികസിപ്പിക്കുക അല്ലെങ്കിൽ മക്കളെ വ്യക്തിപരമായിട്ടും കായികപരമായിട്ടും എല്ലാരീതിയിലും കുട്ടികൾക്ക് വളർന്നുവരാനുള്ള ഒരു വിദ്യാഭ്യാസം എന്തുവേണേ ബുദ്ധപരായിട്ട് വളർന്നുവരുക ചോദ്യങ്ങൾ ചോദിക്കുക പുസ്തകങ്ങൾ കാണാതെ പഠിക്കുക്ക എഴുതു ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലകളാ വിദ്യാഭ്യസ് അത് പോര നമ്മുടെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടികളെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ എല്ലാ കാര്യങ്ങളിൽ ജീവിതവും അതിൻ്റെ ക്രമീകരണങ്ങളുമെല്ലം അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലകളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടായിരിക്കുക നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെതന്നെ നമുക്ക് വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോഴ് കുഞ്ഞുങ്ങൾക്ക് കെയർ കിട്ടുന്ന എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല അതും കുട്ടികളുടെ ജീവിതത്തിലെ ഒത്തിരിയും മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും ഒക്കെ ആഴപ്പെടുവാനായിട്ടുള്ള ബോധ്യം കുട്ടികൾക്ക് ലഭിക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം